ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതല് ഉപയോഗിക്കുന്ന ആപ്പുകള് ഏതൊക്കെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് കൂടുതലായിട്ടും കണ്ടു വരുന്നത് ഇൻസ്റ്റഗ്രാമ് പിന്നെ വാട്സപ്പ് ആപ് ഫേസ്ബുക്ക് ഇത്തരത്തിലുള്ള ആപ്പുകളാണ് കൂടുതലായിട്ടും കണ്ടു വരുന്നത് അപ്പോൾ ഇത് കൂടുതലായിട്ടും ആളുകൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ വാട്സാപ്പ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ വാട്സപ്പ് ഫേസ്ബുക്ക് ഇ ഇൻസ്റ്റാഗ്രാമൊക്കെ എന്താണ് യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് പിന്നെ മെയിനായിട്ട് മെസ്സേജും കാര്യങ്ങളുമാണ് ഇതിൽ കൂടെ കൂടുതലായിട്ടും കണ്ട് വരുന്നത് പിന്നെ ഇൻസ്റ്റാഗ്രാമിലാകുമ്പോൾ റീല് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഇന്ന് ആളുകള് കൂടുതലായിട്ട് ഇൻസ്റ്റഗ്രാമ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയുടെ പുറകിലാണ് കൂടുതലായിട്ടും നടക്കുന്നത് പിന്നെ ഇപ്പം വൈ മൊബൈൽ ഫോണ്കളോ സ്മാർട്ട് ഫോണ്കളോ കൊണ്ടുള്ള ദോഷങ്ങളും ഗുണങ്ങളുമെന്നൊക്കെ പറയുക ഗുണങ്ങളായിട്ട് പറയാനാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് കാരണം മൊബൈൽ ഫോണിലൂടെ നമുക്ക് എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും അതുപോലെതന്നെ മൊബൈൽ ഫോണ് സ്മാർട്ട് ഫോണൊക്കെ യൂസ് ചെയ്ത് ഇന്നിപ്പോൾ ഇൻസ്റ്റഗ്രാമ് പിന്നെ ഈ യൂട്യൂബ് അങ്ങനത്തെ ചാനലികളിലൂടെയൊക്കെ മണി ഏൺ ചെയ്യാൻ കഴിയുന്നുണ്ട് അതൊരു നല്ല കാര്യമാണ് പിന്നെ ദോഷം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്മാർട്ട്ഫോണുകള് യൂസ് ചെയ്തിട്ടിപ്പോൾ എന്താ പറയുക കുറേ ദോഷങ്ങളുണ്ട് കണ്ണിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രശ്നം ഉണ്ടാവും പിന്നെ മൊബൈൽ ഫോണ്കള് ഈ സ്മാർട്ട് ഫോണുകൾ പൊട്ടിത്തെറിക്കുകയും അതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കണ്ട് വരുന്നുണ്ട് സാധാരണ അങ്ങനെ ചെറിയ ബുദ്ധിമുട്ട് ദോഷങ്ങളൊക്കെയാണ് ഇത് കൊണ്ട് സാധാരണ ഇപ്പോൾ കണ്ടു വരുന്നത്